ഇന്ത്യൻ മാധ്യമങ്ങളെക്കുറിച്ച് ഇപ്പം വളരെ നല്ല അഭിപ്രായമാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ കുറേ മാധ്യമങ്ങളെല്ലാം പണത്തിന് മാത്രം മൂല്യം നൽകിക്കൊണ്ട് എന്താണ് വസ്തു നിഷ്ഠമായ കാര്യങ്ങളൊന്നും അവതരിപ്പിക്കാതെ വാർത്തകളെല്ലാം വളച്ചൊടിച്ച രീതിയിലാണ് അവതരിപ്പിച്ച് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മാധ്യമങ്ങളേയും നമുക്ക് ആ രീതിയിൽ എന്തു ചെയ്യാൻ പറ്റില്ല പറയാൻ പറ്റില്ല എന്നാലും ഏകദേശം മാധ്യമ പ്രവർത്തകർ എല്ലാവരും ആ രീതിയിൽ പ്രവർത്തിക്കുന്നവരാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് പിന്നേ അവർ അവതരിപ്പിക്കുന്നതെല്ലാം വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നതിനോടും എനിക്ക് യോജിപ്പില്ല അവരുടെതായിട്ടുള്ള താൽപര്യങ്ങൾക്ക് അനുസരിച്ച് എന്താണ് അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും താൽപര്യങ്ങൾക്ക് അനുസരിച്ച് അവർ എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ വാർത്തകളെ വളച്ചൊടുച്ച് അല്ലെങ്കിൽ വേറെ ഉള്ളവരുടെ താൽപര്യത്തിന് അനുസരിച്ച് വാർത്തകൾ എന്താണ് ക്രീയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാം വസ്തുനിഷ്ഠമായാണ് അവതരിപ്പിക്കുന്നത് എന്നൊരു അഭിപ്രായത്തിനോട് എനിക്ക് യാതൊരു തരത്തിലുള്ള യോജിപ്പുമില്ല പ്രശസ്തമായിട്ടുള്ള പത്രങ്ങൾ മലയാള മനോരമ മാതൃഭൂമി ഇന്ത്യൻ എക്സ്പ്രസ് പിന്നേ ചാനലുകൾ പറയുകയാണെങ്കിൽ ഏഷ്യനെറ്റ് ന്യൂസ് പിന്ന ട്വെൻ്റി ഫോർ മാതൃഭൂമി ഇതൊക്കെ പ്രധാനപ്പെട്ട വാർത്ത വാർത്ത മാധ്യമങ്ങളാണ്